മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ മത്സ്യം കിട്ടുന്ന ചില സമയങ്ങൾ കടലിൽ ഉണ്ടാകാറുണ്ട് ആ സമയത്ത് ചാകര എന്ന് മ മ മത്സ്യബന്ധനക്കാർ പറയും ഈ ചാകര കിട്ടി വല നിറയെ മീനാകുമ്പം അവർക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര വിജയവുമാണ് അവരുടെ ആ മീൻ പിടുത്ത യാത്ര അതിന് വേണ്ടി അവർ വല വലിക്കുമ്പോൾ വളരെ തന്മയത്തമായിട്ട് ഒരുമിച്ച് ആ ശക്തികിട്ടാൻ ചില വാക്കുകൾ കൊണ്ടുള്ള പദങ്ങൾ അവരുടെ നാടൻ ഭാഷയിൽ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്ത് വരുന്ന സമയത്ത് ആണ് ഇതിനു ഊർജ്ജവും ശക്തിയും കണ്ടമാനം മീൻ വലയിൽ കേറിയിട്ടുണ്ട് ഊർജ്ജവും ശക്തിയും ഉണ്ടാകാൻ വേണ്ടി തന്നെയാണീ ഒരുമിച്ചുള്ള ശക്തിക്കാണ് ഈ ചില പദങ്ങൾ കൊണ്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാറുള്ളത് അതുപോലെ തന്നെ അത് പിന്നെ പിടിച്ചാലിവർക്കെല്ലാംവളരെ ഹാപ്പിയാണ് ഇവരെ വളരെ സന്തോഷത്തിൽ ഇതിനെ നയിച്ച് ചെയ്യും എന്ന് എനിക്കറിയാം